ഹലോ കെ എസ് ഇ ബിയല്ലെ ഞാനേ കഴിഞ്ഞ ന്ന് കെ എസ് ഇ ബിയുടെ കറൻറ്റ് ബില്ല് അടച്ചാരിന്നെ എനിക്കൊരു സംശയം അത് ശരിയായോ ഇല്ലയോന്ന് അതെനിക്ക് അതിൻറ്റേ കറക്റ്റ് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അപ്പാ എനിക്ക് വേണ്ടി ഒരുപകാരം ചെയ്യണം അതിൻ്റെ കെ എസ് ഇ ബിയുടെ വെബ്സൈറ്റില് കയറി എൻ്റെ പൈസ അടയ്ക്കാൻ പറ്റിയിട്ടുണ്ടോ ഇല്ലിയോന്നൊന്ന് എനിക്ക് നോക്കിയിട്ട് അത് പറഞ്ഞുതരണം എനിക്ക് വേറെ ആരുവില്ല പറയാനായിട്ട് അപ്പോള് ഇത് നേരിട്ട് അടയ്ക്കാൻ പറ്റാഞ്ഞതുകൊണ്ടാണ് ഞാന് അടച്ചത് ഇപ്പോള് അപ്പോള് എപ്പ് അതടച്ച് കഴിയുമ്പഴത്തേയ്ക്ക് എനിക്ക് മെസ്സേജ് വരുന്നില്ല മെസ്സേജ് വന്നാലെ എനിക്കത് ക്ലിയറിയ്യാൻ പറ്റത്തുള്ളൂ അപ്പോള് നിങ്ങളത് മെസ്സേജ് കൃത്യമായിട്ട് അയക്കാനായിട്ട് ഒന്ന് പരിശ്രമിക്കുക എൻ്റെ ഫോൺ നമ്പര് ശരിയായിട്ടില്ലെങ്കില് എന്തെങ്കിലും തെറ്റുണ്ടെങ്കില് ഞാനത് ക്ലിയറെയ്തു തരാം പക്ഷേ എനിക്കാ ബില്ല് അടയ്ക്കുന്ന സമയത്ത് ബില്ല് എൻ്റെ അക്കൗണ്ടിലേക്ക് മെസ്സേജായിട്ട് അയക്കണം എനിക്കത് ക്ലിയറെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോള് അതുകൊണ്ട് എനിക്ക് വേണ്ടിയൊരു സഹായം ചെയ്തേ പറ്റത്തുള്ളൂ നിങ്ങളാ വെബ്സൈറ്റില് കയറിയിട്ട് എൻ്റെ പൈസ അടഞ്ഞിട്ടുണ്ടോ ഇല്ലിയോന്ന് നോക്കുകയും ചെയ്യണം അടുത്ത പ്രാവശ്യം മുതല് എനിക്ക് ആ ബില്ലിൻ്റെ മെസ്സേജ് എനിക്ക് തരുകയും വേണം അപ്പോള് നിങ്ങള് എൻ്റെ സേവനമെല്ലാം വളരെ നല്ലതാണ് എപ്പോള് വിളിച്ചാലും നിങ്ങളെ കിട്ടുന്നുണ്ട് ആ സേവനത്തിനൊക്കെ നന്ദി പറയുന്നു പിന്നെ ഇടയ്ക്കിടയ്ക്ക് കരണ്ട് പോവുന്നുണ്ട് അതിൻ്റെ ഒരു ഇതെന്താന്ന് അത് കൂടിയൊന്ന് ശരിയാക്കണം അപ്പോള് നിങ്ങളോട് എനിക്ക് വളരെ നന്ദിയും കടപ്പാടുമുണ്ട് ഏത് സമയത്ത് വിളിച്ചാലും അവിടുന്ന ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കും വരുന്നതുകൊണ്ട് വളരെ നല്ല ഒരു സേവനമാണ് നിങ്ങള് ചെയ്യുന്നത് ഈയൊരു കാര്യത്തില് എന്നെ ഒന്ന് സഹായിക്കണം ഇവിടുന്ന് എനിക്ക് വന്നത് അന്വേഷിക്കാനോ അല്ലെങ്കില് അത് നേരിട്ട് അടക്കാനോ പറ്റാത്തൊരു സാഹചര്യമായതുകൊണ്ടാണ് അതൊന്ന് നിങ്ങള് ശരിയാക്കിത്തന്നാല് വളരെ ഉപകാരമായിരിക്കും വേറെ ആരുമില്ല അങ്ങോടോ വന്നൊന്നത് അന്വേഷിക്കാനോ ഒന്നിനും അവിടെ വീട്ടിൽ വേറാരുവില്ല അപ്പോള് എനിക്ക് വേണ്ടിയിട്ട് അതൊന്ന് ചെയ്തുതരണം ഞാൻ കൃത്യമായിട്ട് ബില്ലടയ്ക്കുന്നതാണ് അപ്പോള് ഇപ്പ ഒരു സംശയം അതടഞ്ഞോ ഇല്ലയോന്നൊരു സംശയം അതൊന്ന് ക്ലിയറെയ്ത് എനിക്ക് ആ വെബ്സൈറ്റിൽ കയറിയിട്ട് ഒന്ന് ശരിയാക്കിത്തരണം എല്ലാ സേവനങ്ങൾക്കും ഞാന് നിങ്ങൾക്ക് നന്ദി പറയുകയാണ് ഈയൊരു കാര്യം ഞാന് നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്തിയതാണ് നിങ്ങള് ഒരുപക്ഷെ മെസ്സേജ് എൻ്റെ ഫോൺ നമ്പരിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കാം എനിക്കത് കിട്ടാതെ പോയത് അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധയിൽപ്പെടുത്തിയ്യാണ് എൻ്റെ കാര്യത്തില് നിങ്ങളൊന്ന് വളരെ ഒന്ന് സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു